പരമ്പരാഗത കളികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ടച്ചുട്ട് ഗോലിക്കളി ഒളിച്ചുകളി ഇട്ടൂലി പത്തൂലി കുഴിപ്പന്ത് കളി ഡപ്പക്കളി കൊട്ടിയും ബോളും പട്ടംപറത്തൽ പാടക്കളി അത്തള പിത്തള തവളാച്ചി ആട്ടക്കളം ഇട്ടൂലി ഉപ്പ് കളി ഉറിയടി കക്ക് കമ്പിത്തായോ കുളംകര തലപ്പന്ത് കളി ഇതിൽ ഞങ്ങൾ കൂടുതലായും കളിക്കുന്നത് ടപ്പകളിയും ഒളിച്ച് കളിയുമാണ് ഒളിച്ചുകളി കളിക്കുമ്പോൾ ഒരു ടീമിൽ ഏഴ് എട്ട് പേർ കളിക്കാനുണ്ടാകും സാപ്പൂത്തിരി എന്ന് പറഞ്ഞ് ഓരോ ഒരാളെ കാക്കയായി തിരഞ്ഞെടുക്കും കാക്ക എന്നിട്ട് പത്ത് പേരെ എണ്ണുകയും എണ്ണിക്കഴിയുന്നതിന് മുൻപ് ബാക്കിയുള്ള ആൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓടി ഒളിക്ക ഒളിക്കുകയും ചെയ്യും മരത്തിൻമുകളിൽ മതിലിൻ്റെ പിറകിൽ വാഴത്തോപ്പിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ എന്നിട്ട് കാക്ക ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ ചെല്ലണം ഓരോരുത്തരും കണ്ടുപിടിക്കുമ്പോൾ പത്ത് വരെ എണ്ണിയ സ്ഥലത്ത് നിന്ന് സാറ്റെന്ന് പറയണം മുഴുവനാളെയും കണ്ട് പിടിച്ച് സാറ്റടിച്ചാൽ മാത്രമേ ആദ്യം സാറ്റടിച്ച ആളെ പിന്നീട് കാക്കയാക്കാൻ പറ്റൂ അതല്ലാ മുഴുവനാളെ കണ്ട് പിടിക്കാൻ ആവാതെ നിന്നാൽ അയാൾ തന്നെ വീണ്ടും കാക്ക ഇങ്ങനെയാണ് കളിക്കുന്നത് അതുകൂടാതെ ഡപ്പകളിയും കളിക്കാറുണ്ട് അതിൽ നാലാളടങ്ങുന്ന രണ്ട് ടീമായാണ് കളിക്കാറ് എട്ട് ഓട് ഒന്നിന് മുകളിൽ ഒന്നായി വച്ച് ആ തട്ട് രണ്ട് ടീമിലെ ഒരാൾ എറിഞ്ഞ് വീഴ്ത്തണം ഒരാൾക്ക് മൂന്ന് തവണ എറിയാൻ സമയം ഉണ്ട് മറ്റേ ടീം അതേസമയം തട്ടിന് പിറകിൽ നിന്ന് പന്ത് പിടിക്കാൻ ശ്രമിക്കണം പിടിച്ച് കഴിഞ്ഞ ടീം എല്ലാവരെയും പിടിച്ച് കഴിഞ്ഞാൽ ടീമിലെ എല്ലാവരും പുറത്താകും ഒരു ഒരു ടീമിലെ ഒരാൾ മൂന്ന് തവണ എറിഞ്ഞ് കഴിഞ്ഞാൽ ടീമിലെ മറ്റുള്ളവര് ആൾക്ക് എറിയാം എറിഞ്ഞ ശേഷം തട്ട് ഓട് തട്ട് വീഴ്ത്തണം വീഴ്ത്തിക്കഴിഞ്ഞാൽ എന്നിട്ട് ടീമിലെ എല്ലാവരും നാലു ദിക്കിലായി ഓടണം മറ്റേ ടീം പന്തെടുത്ത് ടീമിലെ ഓരോ ആൾക്ക് കൈമാറി കൈമാറി മുന്നോട്ട് നീങ്ങി എതിരെ ഉള്ള ടീമിൻ്റെ മുട്ടിന് താഴെ എറിഞ്ഞാൽ ടീം മൊത്തം പുറത്താകും ഒരാൾ ഒരാൾ ഒരാൾ എറിയുമ്പോൾ മറ്റെയാൾ തട്ട് ഇട്ട ഓട് തട്ട് ഒന്നിനുമുകളിലായി ഒന്നായി വച്ചിട്ട് ശേഷം ഡപ്പാ എന്ന് വിളിച്ചാൽ ആ ടീം ജയിക്കും ഇങ്ങനെയാണ് ഡപ്പകളി കളിക്കാറ്